ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിഎട്ട് ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച്